ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരിക്കൽ നേരിട്ട വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് തന്നെ കുടിവെള്ള ക്ഷാമമായിരുന്നു കുടിവെള്ള ക്ഷാമത്തിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഞങ്ങൾ അത് കംപ്ലൈൻ്റ് ചെയ്തു പഞ്ചായത്തില് കംപ്ലൈൻ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾക്ക് ഒരു പൈപ്പ് ഒരു പൊതു പൈപ്പ് എല്ലാ ആദ്യം ഒരു പൊതു പൈപ്പായി ഇട്ടിട്ടു പിന്നെ അതിൻ്റെ പേരിൽ തർക്കമുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ എല്ലാ വീടുകളിലേക്കും ഓരോ പൈപ്പ് കണക്ഷൻ എത്തിക്കുകയും അതുപോലെ തന്നെ കുടിവെള്ള ക്ഷാമം കുറയുകയും ചെയ്തു നമുക്ക് അതിൻ്റെ പേരിലുള്ള ഒരു ഇത് മാറി കിട്ടുകയും ചെയ്തു അതുപോലെ ഒരു കാര്യം തന്നെയാണ് കാരണം ഞങ്ങളെ അപേക്ഷിച്ച് വെള്ളത്തിന് നല്ലോണം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്